ഞാന് അങ്ങനേയിട്ടുള്ളൊരു തയ്യല് ഇന്സ് പഠിപ്പിക്കുന്ന ഇന്സ്റ്റിട്ട്യൂട്ടില് പോയി തയ്യല് പഠിച്ചിട്ടില്ല ഞാന് പഠിച്ചത് ഓണ്ലൈന് വഴിയും പിന്നെ പുസ്തകം പോലുള്ള പുസ്തകം തയ്യലിന് പ്രത്യേകം പഠി തയ്യല് രീതി പഠിക്കാനുള്ള പുസ്തകമൊക്കെ ഉണ്ടല്ലോ അങ്ങനെയെക്കെ മേടിച്ചാണ് പഠിച്ചത് പക്ഷെ എനിക്ക് എല്ലാംതന്നെ ഒരുമാതിരി എളുപ്പമായിരുന്നു ഏറ്റവും പ്രയാസമേറിയതും സാരി ബ്ലൗസായിരുന്നു സാരി ബ്ലൗസ് ഞാന് ആദ്യം എനിക്ക് തന്നെ ഒരഞ്ചാറ് ബ്ലൗസ് തയിച്ച്തയിച്ച് ഞാന് പഠിച്ചു പിന്നെയാണ് വെളിയില് ഉള്ള ആളുകള്ക്കെന്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനുമൊക്കെ തയിക്കാന് തയിച്ചു കൊടുക്കാന് തുടങ്ങിയത് ആദ്യം ഞാന് തയിച്ചു വേറെ എന്റെയൊരു കസിന് സിസ്റ്ററിനും ഒരു ഫങ്ങ്ഷന് പോവാന് ഒരു സാരി ബ്ലൗസ് തയ്ച്ചപ്പോള് ഈ എല്ലാം ശരി ആയി എങ്കില്പ്പോലും അതിട്ട് നോക്കിയപ്പോള് ഭയങ്കര ടൈറ്റായിരുന്നു അത് പിന്നെ അഴിച്ച് അധികം സമയമുവില്ല അവര്ക്ക് പോവാനാണെങ്കില് ഒരു മണിക്കൂറൂടെ ഉള്ളായിരുന്നു പിന്നെ ഞാന് മൊത്തവും അഴിച്ച് എല്ലാം രണ്ടാമത് റിപ്പയറെയ്തു കൊടുത്തു അവര് ഹാപ്പിയായി എന്നാല്പ്പോൾ എനിക്ക് മനസ്സിലായി ഒരു സാധനം തയ്ക്കാന് തന്നാല് പ്രത്യേകിച്ച് സാരി ബ്ലൗസ് കൊണ്ടുവന്നാല് അത് ഒന്നിട്ടു തയിച്ചു കഴിഞ്ഞാല് അവരേക്കൊണ്ട് വീട്ടില് വെച്ചു തന്നെയൊന്ന് ഇടീപ്പിച്ചു നോക്കിയിട്ടു വേണം കൊടുക്കാനെന്നുള്ളത് അപ്പോഴെന്തെങ്കിലും മിസ്റ്റേക്കുണ്ടെങ്കിലപ്പോള് തന്നെ അത് ശരി കൊടു ശരി ചെയ്തു കൊടുക്കാമല്ലോ വീട്ടില് ചെന്നിട്ടിട്ട് കഴിഞ്ഞാല് പിന്നെ അവര്ക്ക് ഇപ്പോള് എവിടെയെങ്കിലും പോവാനത്യാവശ്യത്തിനായിരിക്കും അവര് ചിലപ്പോള് അതിടാന് പോണത് അന്നേരം പിന്നവര്ക്കും ആ സമയം ഇല്ലെങ്കില് അവര്ക്കൊരു വിഷമമായിരിക്കും പിന്നെ സാരി ബ്ലൗസ് തയ്ച്ചാല് നല്ല പൈസയും കിട്ടും അതുമൊരു ഒരു സന്തോഷമാണ് മറ്റുള്ള ഏത് സാധനം തയ്ക്കുന്നതിനേക്കാളിലും ബെനിഫിറ്റുള്ളൊരു കാര്യമാണ് സാരി ബ്ലൗസ് തയ്ക്കുന്നത് അങ്ങനെ സാരി ബ്ലൗസ് ആണ് എനിക്കേറ്റവും തയ്യല് ഞാന് തയ്യല് പഠിച്ച് തുടങ്ങിയ സമയത്തെനിക്കേറ്റവും ബുദ്ധിമുട്ടായി തോന്നിയത് പക്ഷെ ഇപ്പോള് നന്നായിട്ട് ഞാന് സാരി ബ്ലൗസ് തയ്ക്കാന് പഠിച്ചു എല്ലാര്ക്കും ഞാന് ത സാരി ബ്ലൗസ് തയിച്ചും കൊടുക്കുന്നുണ്ട് അങ്ങനെ സാരി ബ്ലൗസ് തന്നെ തയിച്ചു കൊടുത്താണ് ഞാനൊരു നല്ല ഇന്കം ഏണ് ചെയ്യുന്നുണ്ട് അതെന് എനിക്കും ഒരു സന്തോഷം എന്റെയൊരു എന്നാ പറയുന്നത് എന്റെ കാര്യങ്ങളൊക്കെ അത് ഒരു തയ് തയ്ക്കുന്നത് കൊണ്ടെന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് തന്നെ ചെയ്യാന് പറ്റുന്നുണ്ട് ആരുടെയും മുന്നില് ഭര്ത്താവിന്റെയോ മക്കളുടെയോ ഒന്നും മുന്നില്പ്പോയി അതിന് പൈസ വേണം ഇതിന് പൈസ വേണം തരാമോ എന്ന് ചോദിക്കേണ്ട വരുന്നുമില്ല അതിന് മുമ്പക്കൊത്തിരി നമ്മുക്കേത് കാര്യത്തിനും അവരെ ആശ്രയിക്കണമായിരുന്നു ഇപ്പോള് തയിക്കുന്നത് കൊണ്ട് എന്റെ കാര്യങ്ങളൊക്കെ എനിക്കത് കൊണ്ടൊന്നും ചെയ്യാന് പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായെനിക്ക് തോന്നുന്നു എല്ലാ രും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കില് എല്ലാവര്ക്കും അങ്ങനെ അത്യാവശ്യം അവരുടെ ചെലവിനുള്ള അവരവര്ക്കുള്ള പൈസ ആരുടെ മുന്നില്പ്പോയി കൈ നീട്ടാതെ ഏണ് ചെയ്യാന് പറ്റും താങ്ക് യു